ഇപ്പോൾ എന്റെ പ്രദേശത്ത് സിനിമ തീയേറ്ററുകളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുൽപ്പള്ളി മേഖലയിൽ കൂടുതലായിട്ട് കണ്ടു വരുന്നത് എന്താ പറയാ ബ്ല്യൂ മൂൺ ടീയേറ്റർ പിന്നെ പെൻറ്റാ അങ്ങനത്തെ സിനിമ സെൻറ്ററൊക്കെയാണ് നമ്മൾ ടീയറ്ററുകളൊക്കെയാണ് കൂടുതലും ഉള്ളത് ഇവിടെ പുൽപ്പള്ളി മേഖലയിൽ ഈ രണ്ട് തിയേറ്ററാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഞാൻ പോകാറുള്ളതും സിനിമയൊക്കെ കാണാൻ പോകാറുള്ളതും കാരണം ഞാനിപ്പോൾ സിനിമ കാണാൻ കൂട്ടുകാരൊത്തും പിന്നെ ഫാമിലിയൊത്തും ബ്രദേഴ്സിന്റെ കൂടെയൊക്കെയാണ് ഞാൻ സാധാരണ പോകാറ് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അടുത്തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് സിനിമയൊക്കെ പോയിട്ടുണ്ട് പിന്നെ വയനാട്ടിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പിന്നെ പോകാറുള്ളത് എന്ന് പറയുമ്പോൾ മാനന്തവാടിയിലെ ജോസ് തിയേറ്റർ വീണ വർണ്ണ മാരുതി ഇങ്ങനത്തെ ടീയേറ്ററുകളിൽ ഒക്കെയാണ് മാനന്തവാടി മേഖലയിൽ ഞാൻ പോകുന്നത് പിന്നെ ബത്തേരിയൊക്കെ ആണെങ്കിൽ അവിടെ മിന്റുമാളിന്റെ ടീയേറ്ററ് ഉണ്ട് പിന്നെ ഐശ്വര്യ ടീയേറ്റർ അങ്ങനെ കുറെ ടീയേറ്ററുകൾ അവിടെ ബത്തേരിയിലുമുണ്ട് പിന്നെ ഇത്തരത്തിൽ വയനാട്ടിൽ കുറെ ടീയേറ്ററുകൾ ഉണ്ടെങ്കിലും ഞാൻ കൂടുതലായിട്ടും പോകാറുള്ളത് ഈ ടീയേറ്ററുകളിലാണ് അപ്പോൾ ഫാമിലിയിൽ ബ്രദേഴ്സും കാര്യങ്ങളും കസിൻസ് ഒക്കെ ഒരുപാടുള്ളതുകൊണ്ടും ഓരോ സ്ഥലത്തായിട്ട് ആയതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ ഞാൻ ഈ തീയേറ്ററുകളിലൊക്കെയാണ് സാധാരണ പോകാറ് അവിടെയാണ് ഞാൻ സാധാരണ സിനിമയ്ക്കൊക്കെ പോകാൻ കൂടുതലും ആഗ്രഹിക്കാറുള്ളതും